രണ്ട് ദിവസായിട്ട് ഭയങ്കര പനിയാണ് പിന്നെ ചുമയും ഉണ്ട് വേറെ ഇത് പനിയാണ് ഭയങ്കരായിട്ട് പനിയാണ് ചുമയും ഉണ്ട്

തൊണ്ട വേദന അങ്ങനെ അത്രയ്ക്കില്ല

അതെ ഇവിടെ ഉണ്ടായിരുന്ന പാരസെറ്റമോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു

രാത്രിയും രാവിലെയും കുടിക്കലിണ്ട്

അ വേറെ എന്തെങ്കിലും മരുന്ന് എടുക്കണോ അ ആയിക്കോട്ടെ

അ ഓക്കേ അ രണ്ട് ദിവസം കൂടെ നോക്കീട്ട് കുറവ് ഇല്ല എങ്കിൽ കാണിക്കാം അ വീട്ടിൽ ഏട്ടനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പോൾ ചുമ ഉണ്ട് പനി വിട്ട് അ ഇപ്പോൾ കുഴപ്പൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് ദിവസായി ഏട്ടന് നല്ല ചുമ ഉണ്ട് അ അ ആയിക്കോട്ടെ